കേരളം സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് പരീക്ഷിക്കാവുന്ന ജനപ്രിയ വിനോദ പ്രവർത്തനങ്ങള് അല്ലെങ്കില് സാഹസിക കായിക വിനോദങ്ങളെന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങള് ഒന്ന് വയനാട് മറ്റൊന്ന് ആലപ്പുഴ ഈ രണ്ട് സ്ഥലങ്ങള് ആലപ്പുഴയില് പറഞ്ഞാല് നമുക്ക് അവിടെ ജലത്തിലൂടെയുള്ള യാത്രകള് അതുപോലെ പിന്നെ ബോട്ട് യാത്ര പിന്നെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ബോട്ട് യാത്ര പിന്നെ അതുപോലെ തന്നെയാണ് വയനാട്ടിലെന്നു പറഞ്ഞാല് മലകളും കുന്നുകളും പിന്നവിടെ അതുപോലെ അരുവികള് നല്ല തണുത്ത വെള്ളം ഇങ്ങനെ വരുന്ന അരുവികളുണ്ടാവും പിന്നെ ട്രക്കിങ്ങ് ഇതൊക്കെ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാടിഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങള് അതുപോലെ കൊല്ലം അപ്പം ഈ സ്കൂള് വേനലവധിക്ക് പറഞ്ഞാല് കുട്ടികളുമായിട്ടും ഞങ്ങള് ഭർത്താവും കുട്ടികളും ഞാനൊക്കെ ഏറെ പോകാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഈ വയനാട് ആലപ്പുഴ എന്നീ രണ്ട് സ്ഥലങ്ങള് മക്കൾക്ക് പറഞ്ഞാല് ബോട്ട് യാത്ര അത്ര ഇഷ്ടപ്പെട്ടൊരു യാത്രയായതുകൊണ്ട് ഏറെയും ഞങ്ങളങ്ങനെയാണ് പോകാറുള്ളത് പിന്നതുപോലെ ഞാന് സ്കൂളില് പഠിച്ചിരുന്ന കോളേജില് പഠിച്ചിരുന്ന സമയത്തൊക്കെ ഒരുപാട് യാത്രകള് പോയിരുന്നതും ഏറെ പോയിരുന്നത് ഈ വയനാട് അതുപോലെ കൊല്ലം ആലപ്പുഴ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയായിരുന്നു പിന്നെ വിനോദസഞ്ചാരികളായാലും ഏറെ വരുന്നതും ഈ ആലപ്പുഴ പിന്നെ വയനാട് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെയാണ്